ആ കേൾക്കാമോ ആ ആ അതേലോ എന്തായിരുന്നു ആ പൈപ്പ് ടാപ്പിൻ്റെ അടുത്താണോ അതോ പൈപ്പ് തന്നെയാണോ ഓസിനാണോ ആ ശരി ശരി ശരി എത്ര സ്ഥലത്ത് കൊടുക്കാനുണ്ട് ആ എവിടെയായിട്ടാണ് വീട് തങ്കമണി ആ ഓക്കേ തങ്ക സിറ്റിടെ അടുത്താണോ കാമാഷിയിൽ കാമാക്ഷിക്കൊക്കെ ആ വരുന്ന വഴിയിലല്ലേ കട്ടപ്പന ചെറുതോണി റോട്ടിലുള്ളതല്ലേ ആ ഓക്കേ മനസ്സിലായി ഞങ്ങൾ സാധാരണ പണിയാൻ പോകുന്നത് ഞങ്ങൾ രണ്ട് പേരാണ് വർക്കുകൾക്ക് പോകുന്നത് ഞാനും എൻ്റെയൊരു അസിസ്റ്റണ്ടും ഉണ്ട് ഞങ്ങൾ രണ്ട് പേരുംകൂടെയാണ് വരുന്നത് ആ ഇതിപ്പം തീരെ ഉപയോഗിക്കാൻ പറ്റാണ്ട് കിടക്കുവാണോ ആണല്ലേ ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു പണിയിലാണ് അത് കഴിയുമ്പം നാളെ ഉച്ച കഴിഞ്ഞ് വന്നാൽ അവിടെ പണിയെടുക്കാൻ പറ്റുമോ നാല് സ്ഥലത്ത് പൊട്ടലുണ്ട് അപ്പം എങ്ങനാ പൈപ്പുകൾ ഉണ്ടോ സാധനങ്ങൾ മേടിച്ചതെന്തെങ്കിലും ഇരുപ്പുണ്ടോ വീട്ടിൽ ആ ഓക്കേ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ടെ പറയാൻ പറ്റുള്ളൂ പണിക്കൂലി ആയിട്ട് വരുവാണെങ്കിൽ രണ്ടു രീതിയിൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ കോൺട്രാക്ട് പോലെ മൊത്തത്തിൽ എസ്റ്റിമേറ്റ് എടുത്ത് വന്ന് പണിയും അല്ലെങ്കിൽ പണിക്കൂലി ആയിട്ട് ചെയ്യും അന്നേരം സാധനങ്ങളുടെ സാധനങ്ങൾ വാങ്ങിത്തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ

ആ ഓക്കേ അപ്പോൾ ഇതിൻ്റകത്ത് ഓ ഏകദേശം നാല് ഓസിൻ്റെ എന്ന് പറയുമ്പോൾ പല കമ്പനികളുടെയുണ്ടല്ലോ പണിക്കൂലി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ നമുക്കൊരു ദിവസത്തെ വർക്ക് അധികം നേരം എടുക്കുവേലായിരിക്കും ഒരു ദിവസംകൊണ്ട് തീർക്കാമായിരിക്കും അപ്പം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയിലൊക്കെ രണ്ടു പേരുടെയുംകൂടെ പണിക്കൂലി തീർത്തുതരാം എന്നിട്ട് നമ്മൾ സാധങ്ങളെടുക്കുന്നതിൻ്റെ പൈസ ഇപ്പം സുപ്രീം ഒക്കെ പോലെത്തെ പൈപ്പും നല്ല ബ്രാന്ഡിൻ്റെയൊക്കെ ഫിറ്റിങ്സുകളൊക്കെ വേടിക്കുമ്പോൾ പൈസ കൂടും ആ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെയെവിടെങ്കിലും സാധനം വേടിക്കാനുള്ള കടകളെടുത്തുണ്ടോ പരിചയം ഉള്ളത് ആ നാളെ വന്നുനോക്കിയിട്ട് പറയാം നാളെ വരാം നാളെ ഉച്ചക്കെ വരുള്ളൂ ഉച്ച വരെ ഞങ്ങൾക്ക് പണിയുണ്ട് ആ വിളിച്ചിട്ട് വരാം വിളിച്ചിട്ട് വരാം ചേട്ടൻ്റെ ലോക്കഷന് ഒന്ന് ഇട്ടേക്കാമോ വാട്സപ്പിൽ ആ ഓക്കേ ശരി ശരി